എനിക്ക് ഏറ്റവും അടുത്തുള്ള സ്പോർട്സ് സെൻറ്ററെന്നു പറഞ്ഞാല് ആര്യ സ്പോർട്സ് ഹബ്ബെന്നു പറഞ്ഞതാണ് ഇത് നമ്മുടെ മൈലാടി മൈലാടിയിലാണുള്ളത് ഇതു തുടങ്ങിയപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സായിട്ടാണ് തുടങ്ങിയത് ഇവിടെ പലതരത്തിലുള്ള കളികളുണ്ട് ഇവിടെ ആദ്യം തുടങ്ങിയപ്പോൾ ഫുട്ബോളായിരുന്നു ഫുട് ബോൾ അഥവാ കാൽപന്തായിരുന്നു കാൽപന്തിനു വേണ്ടിയായിരുന്നു ഇതു തുടങ്ങിയത് ഇതു ശരിക്കും പറഞ്ഞാല് ദുബായിയില്നിന്ന്

ഇത് പിന്നെ ഇത് വളരെയധികം വിപുലീകരിച്ച് ഇപ്പോള് അവിടെ ക്രിക്കറ്റ് ഫുട് ബോൾ സ്കേറ്റിംഗ് സ്വിമ്മിങ് ബാഡ്മിൻറ്റൺ പിന്നെ പിള്ളാർക്കുവേണ്ടി വേറെ കളിക്കുന്ന ചെറിയ പിള്ളേർക്കുവേണ്ടി കളിക്കുന്ന സ്ഥലങ്ങൾ ജിം പിന്നെ ഭക്ഷണം കഴിക്കുന്ന കടകൾ എന്നിവയെല്ലാം കൂടെക്കൂടി ഇതിപ്പോഴൊരു വലിയ വലിയ കോംപ്ലക്സായി മാറിയിരിക്കുകയാണ് ഇത് മൈലാടിയുടെ ഒരു കാഴ്ച മൈലാടി എന്നു പറയുന്ന സ്ഥലത്തിൻ്റെ കാഴ്ചപ്പാടു തന്നെ മാറ്റിയൊരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൽ ഒരു പതിനഞ്ച് പേരോളം ജോലി ചെയ്യുന്നുണ്ട് ഇത് ഈ ഗ്രൗണ്ട് മെയിൻറ്റേൻസെയ്യുന്നത് പിന്നെ അവിടെ വെള്ളമൊഴിക്കുന്നത് അവിടെ ഈ സമയങ്ങൾ നോക്കി കൺട്രോളെയ്യുന്നത് പിന്നെ ആൾക്കാര് വരുമ്പോ അവരെ അസിസ്റ്റെയ്യാൻ വേണ്ടി ഇതിനെല്ലാത്തിനും വേണ്ടി വളരെ പതിനഞ്ചോളം സ്റ്റാഫുകളുണ്ട് പിന്നെ ഇത് സ്ഥിതി ചെയ്തിരിക്കുന്നത് മെയിൻ റോഡ് സൈഡിലായതുകൊണ്ടു തന്നെ ആർക്കും വളരെ എളുപ്പത്തിൽ ഇവിടോട്ട് വരാം

ഇവിടെ രാവിലെ അഞ്ചു മണിതൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ ഇതു പ്രവർത്തിക്കുന്നതാണ് എന്നാൽ ഈ വ്യായാമം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏതുസമയത്ത് വന്നാലും ഇവിടെ വ്യായാമം ചെയ്യാവുന്നതാണ് നേരത്തെ ഗ്രൗണ്ടിനുള്ളിൽ കയറുന്നതിന് പാസൊന്നും ഇല്ലായിരുന്നു പക്ഷേ തിരക്കു കൂടിയതിനുശേഷം അവിടെ കയറാൻ വേണ്ടി അതോ കാണാൻ കയറാൻ വേണ്ടി ഉള്ളതോ അല്ലെങ്കില് ചെറിയ പിള്ളാരെക്കൊണ്ട് കയറുന്നർക്ക് ഇരുപത്തിയഞ്ച് രൂപ പാസ് വച്ച് ആണു കയറ്റിത്തുടങ്ങിയത് പക്ഷേ അതായതിപ്പോള് അതു നിലവിലില്ല ആ സംഭവം മാറ്റിയിട്ടുണ്ട് ഈ ഫുട് ബോൾ ഗ്രൗണ്ടിനു ചുറ്റും കുറെ ഓപ്പൺ ജിം ഓപ്പൺ സ്പേസ് വച്ചിട്ടുണ്ട് അവിടിരുന്ന് ഓപ്പൺ ജിമ്മിൽ വ്യായാമം ചെയ്യേണ്ടവർക്കു ചെയ്യാം പിന്നെ ക്രിക്കറ്റിവിടെ ഇപ്പോഴൊരു വൻ ഭയങ്കരമായി തുടങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമായിട്ടുണ്ട് അതായത് ഫുട് ബോളിനെക്കാട്ടിലും കൂടുതലാൾക്കാർ ടർഫിലിപ്പോള് ക്രിക്കറ്റ് കളിക്കാനാണ് താല്പര്യപ്പെടുന്നത് ക്രിക്കറ്റ് കളിയെന്നു പറഞ്ഞാൽ പണ്ടെല്ലാവരും ഗ്രൗണ്ടിലോ അല്ലെങ്കില് അവരുടെ വീടിനടുത്തുള്ള ചെറിയ പറമ്പിലോ കളിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോശ്ർ ടർഫില് കളിക്കുമ്പോൾ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിലപ്പോള് അടിക്കുമ്പോള് പന്തു കാണാതെ പോവും ഇല്ലെങ്കിലത് തപ്പാൻ എടുക്കണം അങ്ങനെ കുറേ സമയം പിടിച്ചുകൊണ്ടിരുന്ന പക്ഷെ ഇങ്ങനെയൊരു സ്ഥാപനം വന്നതിനുശേഷം ഇവിടെ കളിക്കാൻ വരുമ്പോൾ ഒരിക്കലും ബോള് കാണാതെ പോവുന്നില്ല അതല്ല ആർക്കും കളി ഒഴികെ പന്തു തപ്പാൻ ഇറങ്ങേണ്ടതോ അങ്ങനത്തെ ഒരു ആവശ്യങ്ങൾ വരുന്നില്ല ഇവരിവിടെ കളിക്കാൻ വരുന്ന മുഴുവൻ സമയവും ഇവർക്കിവിടെ നിന്ന് കളിക്കാം ഇവര് അവരവരുടെ സമയം കഴിഞ്ഞാല് ആ സ്ലോട്ട് കഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് മാറിക്കൊടുത്താല് മതി അതല്ലാതെ വേറൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇവിടെ കളിക്കാൻ വരുന്നവർക്ക് വന്നിട്ടില്ല പിന്നെ ഇവിടെ നീന്തൽ പരിശീലനം കൊടുക്കുന്നതാണ് അതായത് ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർക്കുവരെ എല്ലാവർക്കും നീന്തൽപരിശീലനം എല്ലാ ദിവസവും കൊടുക്കുന്നയാളാണ് അതിന് അതിന്റേതായിട്ടുള്ള സമയപരിധികൾ വച്ചിട്ടുണ്ട് ആ സമയത്തു വന്ന് രജിസ്റ്റർ ചെയ്തവർക്കു നീന്തൽ പരിശീലനത്തി ലേർപ്പെടാം അല്ലാതെ നീന്തൽ നീന്താൻ അറിയാവുന്നവർക്ക് സ്വിമ്മിങ് പൂളിൽ നീന്തണമെന്നുണ്ടെങ്കിൽ മണിക്കൂറിന് ഇരുന്നൂറ് രൂപ വച്ച് നൽകി ഒരു മണിക്കൂർ നീന്തൽ നീന്താം സ്വിമ്മിങ് പൂളിൽ നീന്താം പിന്നെ കുടുംബപരമായിട്ടു വരുന്ന ആർക്കേലും കുറച്ചു സമയം വ്യായാമം ചെയ്യണോ ചെയ്യണമെങ്കിലോ അല്ലെങ്കിലവരുടെ സമയം ചെലവഴിക്കണമെങ്കിലോ ഇത് നല്ലൊരു സ്ഥലമായി മാറിയിട്ടുണ്ട് അങ്ങ് മിക്ക ആൾക്കാരും വൈകുന്നേരമാവുമ്പോഴത്തേക്കും ഇവിടെ വന്ന് കുറച്ചു സമയം ചെലവഴിച്ച് വ്യായാമമൊക്കെ ചെയ്ത് പോകുന്നതായിട്ടാണു കാണപ്പെടുന്നത് ആ ആൾക്കാര് ഈ ഒരു സ്ഥലത്തിൽ വളരെ സന്തോഷത്തോടായിട്ടിരിക്കുന്നുണ്ട് അത് കളികൾക്കു വേണ്ടി മാത്രമല്ല പക്ഷേ അവരവരുടെ സമയം ചെലവാക്കാൻ വേണ്ടിക്കൂടെ ഇവിടെ വരാറുണ്ട് ഇതൊരു വളരെ വലിയ ലാഭത്തിലോടുന്ന പ്രസ്ഥാനമാണെന്നൊന്നും തോന്നുന്നില്ല പക്ഷേ ഇത് ആൾക്കാരുടെ ആരോഗ്യത്തിന് ആരോഗ്യത്തിനു നല്ല ആരോഗ്യത്തിനും വേണ്ടി സഹായിക്കുന്നൊരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട് ഇങ്ങനൊരു സ്ഥാപനം വന്നതില്പ്പിന്നെ അതായത് ടർഫുകൾ വന്നതില്പ്പിന്നെ ആൾക്കാർക്കു പുറത്തിറങ്ങി കളിക്കാൻ പോവാനുള്ള ആ ഒരു ആ ഒരു ചിന്ത പിന്നെ വീണ്ടും കൂടിയിട്ടുണ്ട് നേരത്തെ ആൾക്കാര് വൈകുന്നേരം ഒരു ആറു മണി ഏഴു മണി കഴിഞ്ഞാല് ഒരിക്കലും കളിക്കാനിറങ്ങുന്ന കളിക്കാനിറങ്ങുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു പക്ഷേ ഇങ്ങനത്തെ സ്ഥാപനങ്ങള് വന്നതിനുശേഷം ഇപ്പോള് ആൾക്കാര് രാത്രി പത്തു മണി വരെ ആണേലും ഇവിടെ കളിക്കാൻ വരുന്നുണ്ട് അവരിവിടെ വന്നു സമയം ചെലവാക്കുന്നുണ്ട് വ്യായാമം ചെയ്യുന്നുണ്ട്